കറക്റ്റ് ആണോ അത് ഏത് മോഡലാന്ന് നോക്കിക്കൂടെ ഷർട്ട് ഫുൾക്കൈ ആണോ ഏതേലും അളവിനായിട്ട് എന്തേലും കൊണ്ടുവന്നിട്ടുണ്ടോ ഹലോ വീട്ടിലാണ് ഞാൻ ഷോപ്പിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും ആണോ നാളെ ഫ്രീ ആണോ എന്നാണ് ആനുവൽ ഡേ

എന്തായാലും നാളെ ഒരു പത്തു മണിയൊക്കെ ആകുമ്പത്തേക്കും വാ ഇപ്പൊൾ എല്ലാ അളവ് എടുത്ത് വിട്ടേക്കാം അതിന് സിബ്ബല്ലേ ഉള്ളത് തിരക്കുണ്ട് എന്നാലും ആ ഞാനൊര് ഞായറാഴ്ച്ച വൈകുന്നേരം തന്നാൽ പോരെ ആ തിങ്കളാഴ്ച്ച ആകുമ്പത്തേക്കും തയിച്ച് വെച്ചേക്കാം ഒന്നിച്ച് ഒരണമല്ലേ ഉള്ളൂ വേറാർക്കും തൈക്കാനൊന്നും ഇല്ലലോ രണ്ട് ജോഡിയാണ് ഞായറാഴ്ച്ചത്തേയ്ക്ക് ഒരു ജോഡി മതിയോ രണ്ടും വേണ്ടല്ലോ അടുത്തത് എപ്പത്തേക്കാണ് വേണ്ടേ ഞാനൊരു ബുധനാഴ്ച്ചയൊക്കെ ആകുമ്പത്തേക്കും തരാം അപ്പോഴത്തേക്കും പോരേ ഞാനൊരു ഒമ്പതരയൊക്കെ ആകുമ്പോൾ തുറക്കും നാളെയൊരു പത്തുമണിയാകുമ്പത്തേക്കും വാ എന്തായാലും

വൈകുന്നേരം അഞ്ച് മണിവെരെയുണ്ട് അത് കൊണ്ടുവാ എന്തായാലും

ഓക്കെ ഓക്കെ എന്നാൽ ശരി